അഭിരാമിയുടെ സഹോദരൻ ചെറുപ്പക്കാർ വ്യത്യസ്ത നൃത്ത രൂപങ്ങൾ രൂപങ്ങളുമായി ഏർപ്പെടുന്നവരുണ്ട് കാരണവഋക്ക് കാണണമെന്ന് പറയുമ്പോൾ തീരെ ഒത്തിരി ഒത്തിരി ആള്ക്കാര് ചേർന്നു താമസിക്കുന്നത് ആണല്ലോ ഒരു ഗ്രാമീണ സമൂഹമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വ്യത്യസ്തത തരത്തിലുള്ള ആൾക്കാർ ഉണ്ടായിരിക്കാം അവിടെ പല നൃർത്തങ്ങളിൽ ഏർപ്പെടുന്നവർ ഉണ്ടായിരിക്കാം അതായത് ഡാൻസ് കളിക്കുന്നവർ അല്ലെങ്കിൽ കുച്ചിപ്പുടി നടത്തുന്നവർ ഭരതനാട്യം ഉള്ളവർ മോഹിനിയാട്ടമുള്ളവർ അങ്ങനെ പല നൃത്ത രൂപങ്ങളുള്ളവർ ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ എന്തെങ്കിലും എന്ത് ഇപ്പം ഒരു അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും എന്തെങ്കിലും പരിപാടികളൊക്കെ വന്നാൽ അവിടെ മോഹിനിയാട്ടം കഥകളി ഒക്കെ നടത്തറുണ്ട് കഥകളിയൊക്കെ ഒത്തിരി ആൾക്കാർ കഥകളിയൊക്കെ അറിയാവുന്നവർ ഉണ്ടായിരിക്കാം ഇപ്പം ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ ഉത്സവങ്ങളും കാര്യങ്ങളുമൊക്കെ വരുമ്പഴ് ഒത്തിരി ചെറുപ്പക്കാർ അതിനു വേണ്ടി തയ്യാറാകും പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഭരതനാട്യം കളിക്കാനായിട്ട് നല്ല ടാലൻ്റുള്ള പെണ്ണുങ്ങൾ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരൊക്കെ അതിനായിട്ട് പരിശ്രമിക്കും പിന്നെ മോഹിനിയാട്ടം നാടോടിനൃത്തം അറിയാവുന്നവർ നല്ല നാടോടി നൃത്തങ്ങൾ അവതരിപ്പിക്കുക അവതരിപ്പിക്കാറുണ്ട് നാടോടി നൃത്തമെന്ന് പറഞ്ഞാൽ വളരെ നന്നായ രീതിയിൽ പഴയ കാലത്തുള്ള ഓരോ കഥകൾ അവർ അവതരിപ്പിച്ച് കാണിക്കുന്നത് കാണാൻ തന്നെ വലിയ ഒരു ഭംഗിയാണ് അങ്ങനെ വിവിധ തരത്തിലുള്ള നൃത്തരൂപങ്ങൾ ഈ ഈ സമൂഹത്തിന് എല്ലാ വ്യക്തികളും ചെയ്യാറുണ്ട് ഭരതനാട്യവും മോഹിനിയാട്ടവും കുച്ചിപ്പുടി നാടോടി നൃത്തം ഇതൊക്കെ കൂടുതൽ സമൂഹം കൂട്ടം കൂട്ടമായി ആ ഓരോ രീതിയിൽ വേദിയിലിരുന്ന കുട്ടികൾ തന്നെ പരസ്പരം കണ്ടെത്തി എന്തെങ്കിലും ഒരു ആഘോഷ പരിപാടികൾ വരുന്ന നേരത്തേ തന്നെ അതിനായിട്ട് ഒരുങ്ങി ചെറുപ്പക്കാർ എല്ലാവരും വ്യത്യസ്ത നൃത്ത രൂപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് നമ്മുടെയൊക്കെ നാട് നാട്ടിൽ അതു പോലെ തന്നെ എല്ലാവർക്കും അതാണ് ചെയ്യുമ്പോൾ വലിയ സന്തോഷവും ഉത്സാഹവുമാണ് അവർ ചെയ്യാൻ വേണ്ടി അവർക്ക് ഭയങ്കര താല്പര്യമാണ് അതിന് ശേഷം അവരുടെ കളികൾ വളരെ കൊള്ളാമായിരുന്നു എന്ന് മറ്റുള്ള വ്യക്തികൾ പറയുന്ന കേൾക്കുമ്പോൾ അതിൽ അഭിമാനത്തോടെ നിൽക്കാനും അതിന് നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് എത്രയൊക്കെ ഡാൻസും നൃത്തങ്ങളുമൊക്കെ അറിയാവുന്ന കുട്ടികൾ ഉണ്ടെന്ന് നമ്മൾ അറിയുമ്പം നമ്മൾക്ക് ഒത്തിരി ഒത്തിരി സന്തോഷവും ഒക്കെ ഉണ്ടാകാറുണ്ട് ഏത് പരിപാടികൾ ആണെങ്കിലും നടത്തുമ്പോൾ ഏതു പരിപാടി ആണെങ്കിലും നടത്തുമ്പോൾ അതിൻ്റേതായ ഒരു മഹത്വമുണ്ട് ഏതു എല്ലാ പരിപാടികളിലും വളരെ നമ്മളോട് പിന്നെ കുട്ടികളോടെ ഒരു കാര്യം കലയെ പറ്റി പറയുമ്പോൾ അതെല്ലാം ചെയ്യാൻ വേണ്ടി അവർ മനസ്സ് കാണിക്കുന്ന ചെറുപ്പക്കാരുള്ള ഒരു നാടായിട്ട് അത് നമ്മുടേത് മാറിയിട്ടുണ്ട് മോഹിനിയാട്ടമൊക്കെ പഠിപ്പ് ഇപ്പം കളിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പോലും അറിയുക അല്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും അങ്ങനെ ഇപ്പം പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ പല സ്ഥലങ്ങളിലുമുണ്ട് അതെല്ലാം കണ്ടെത്തി അവിടെ പോയി പഠി പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും ഈ കലയോടുള്ള ബന്ധം കൊണ്ട് അതിനുള്ള സമയവും സ്ഥലവും കണ്ടെത്തി അവർ അതിന് വേണ്ടി പോകാറുണ്ട് അങ്ങനെ അത് കണ്ടെത്താനും അല്ല അവർ പ്രത്യേകം അവർ ശ്രമിക്കും അങ്ങനെ രാവിലെ ആണെങ്കിലും വൈകിട്ട് ആണെങ്കിലും ഏതെങ്കിലും ഒരു നേരം കണ്ടെത്തുക പക്ഷെ ഒരു അവധി ദിവസമാണെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെയൊക്കെ അങ്ങനെ പ്രാക്ടീസ് ചെയ്തു അതിനെ പരിപോഷിപ്പിക്കുന്നുണ്ട് ചെറുപ്പകാലം മുതൽ തന്നെ അറിയാവുന്ന കുട്ടികളുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ആ കലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് അതുപോലെ മുതിർന്ന് കഴിയുമ്പോഴും ആ നൃത്ത രൂപത്തിലോട്ട് ആ താല്പര്യം ചെറുപ്പത്തിൽ ഉണ്ടായ ആ താല്പര്യം വലുതാകുമ്പോഴും അത് നിലനിർത്തി പോരുന്നവരുണ്ട് അങ്ങനെ ആ നൃത്തങ്ങളെ ഒരു കാലത്തും അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിത്തന്നെ മാറാറുണ്ട് ഒരിക്കലും ആ നൃത്തത്തിൽ നിന്നും അല്ലെങ്കിൽ ആ കലാവാസനയിൽ നിന്നും പിന്തിരിയാതെ ആ കലാവാസന പരിപോഷിപ്പിച്ച് മുമ്പോട്ട് പോയി ഗ്രാമ ആ ഗ്രാമത്തിലെ ആ കുട്ടികളുടെ ആ കലാവാസന മുമ്പോട്ട് പോകും അങ്ങനെ ഗ്രാമീണ സമൂഹത്തിലെ ചെറുപ്പക്കാർ വ്യത്യസ്ത രീതിയിലുള്ള നൃത്തരൂപങ്ങൾ ഏർപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കും എല്ലാ നാടോടി നൃത്തമാവട്ടെ മോഹിനിയാട്ടം കുച്ചിപ്പുടി കഥകളി എല്ലാത്തിലും ഒരു ഭാഗ ഭാഗിത്തം ഈ ഗ്രാമത്തിലെ എല്ലാവരിൽ നിന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ദിക്കാറുണ്ട് അതൊരു സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും അത് നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും സമൂഹത്തിന് ഗുണകരമാവും സന്തോഷവും മറ്റുള്ളവർക്ക് അത് ലഭിക്കത്തക്ക രീതിയിൽ അത് അവതരിപ്പിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് ഗ്രാമീണ സമൂഹത്തിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് എടുത്തോളം അവർക്ക് ഇങ്ങനെയുള്ള ആ കഴിവുകൾ ഉണ്ടാക്കി എടുക്കാനും അത് എല്ലാവരിലും പ്രദർശിപ്പിക്കാനുമെടുക്കുന്ന വലിയ ഒരു അവസരമായിട്ടാണ് ഈ നൃത്തം രൂപപ്പെട്ടിരിക്കുന്നത്